എനിക്ക് പ്രഷർ കുക്കറിൽ പാകം ചെയ്യുന്നതിനേക്കാൾ പാത്രത്തിൽ തുറന്ന പാത്രത്തിൽ പാചകം ചെയ്യുന്ന ഭക്ഷണമാണ് ഇഷ്ടം കാരണം തുറന്ന പാത്രത്തിൽ ഒരു ഭക്ഷണം മൂടി വച്ച് വേവിച്ചെടുക്കുമ്പോൾ അതിന് കുറേ സമയം വേണ്ടി വരും പ്രഷർ കുക്കറിലാകുമ്പോൾ അത് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഫുഡ് വെന്ത് വരുന്നു ഒരു ഭക്ഷണം തീയിലും വെള്ളത്തിൽ കിടന്ന് തീയിൽ തിളച്ച് വെന്ത് വരുന്നതും വെന്ത് വരുന്നതും പ്രഷർ കുക്കറിൽ ഇൻസ്റ്റൻ്റായിട്ടുണ്ടാക്കുന്നതുമായിട്ട് രുചിയുടെ വ്യത്യാസം രുചി വ്യത്യാസം എന്നു പറഞ്ഞാൽ ഒരു പാത്രത്തിൽ കിടന്ന് തിളച്ച് വെന്ത് വരുമ്പോഴേക്കും ആ ഫുഡിലേക്ക് ഉപ്പ് മുളക് മസാലകൾ എല്ലാം കുറേ സമയമെടുത്ത് വെന്ത് ഭക്ഷണത്തിൻ്റകത്തേക്ക് അങ്ങോട്ട് കയറി നല്ല രുചിയിൽ ആ ഭക്ഷണം വെന്ത് വരും കുക്കറിലാവുമ്പം എന്താ പറ്റുന്നത് ഇൻസ്റ്റൻ്റാണ് ഒറ്റ വിസിലിന് വെന്ത് വരുമ്പോഴേക്കും അതിൻ്റെ രുചി പോകുന്നു അതിലൊന്നും പിടിക്കുന്നില്ല ജസ്റ്റ് വെറുതെ വെന്ത് ഈ വേകൽ തന്നെ വെന്ത് അളിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴേക്കും രുചിയിൽ ഫാർ ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട് ഇപ്പം ഈ രണ്ട് അതാണ് രണ്ട് രുചികൾ തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത് ഒന്ന് വെന്ത് അതിൽ ഉപ്പും പുളിയും എരുവും മസാലകളും സമയമെടുത്ത് പിടിച്ച് കയറി വരുന്നതും ഒറ്റയടിക്ക് വെക്കുന്നതുമായിട്ടുള്ള വ്യത്യാസമാണ് അതിൽ രുചിയിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് ഒറ്റയടിക്ക് വെക്കുമ്പോഴേക്ക് അത് അങ്ങ് വെന്ത് കുഴഞ്ഞ് പോകുന്നു പിന്നെ അതിന് വേണ്ടുന്ന മസാലകളൊക്കെ പിന്നെ നമ്മൾ കലക്കി ചേർക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴുണ്ടോ അപ്പം എത്രയാണ് പറഞ്ഞാലും പാത്രത്തിൽ വെന്ത് വേവിക്കുന്ന ഭക്ഷണത്തിനാണ് രുചി